ഇപ്പം സമീപ വർഷങ്ങളിൽ ടൂറിസം കൂടയോ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം കൂടിയിട്ടാണ് ഉള്ളത് കാരണം ടൂറിസം അതായത് വിനോദസഞ്ചാര മേഖലകളിലുള്ള വളർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ തന്നെ കൂടുതലായിട്ടും പിന്നെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ടു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ടൂറിസം മേഖല നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ടൂറിസം മേഖല മേഖല കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പിന്നെ അതായത് നമുക്ക് സമ്പത്ത് വ്യവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും അതായത് സമീപ വർഷങ്ങളിലെക്കാളും നമുക്ക് സമ്പ സാമ്പത്തിക നിലവിൽ നമ്മൾ ഒരുപടി മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്കുവഹിക്കുന്നത് നമ്മുടെ വിനോദസഞ്ചാര മേഖല തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ടും ഇപ്പം വിനോദസഞ്ചാര അത് ഇപ്പം നമുക്ക് ഇപ്പം ഒരു വെക്കേഷനോ അതെല്ലെങ്കിൽ ഒരു രണ്ടു മൂന്നു ദിവസത്തെ ലീവോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒക്കെ പോയി നോക്കിയാൽ അറിയാം നമുക്ക് അവിടെയുള്ള തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു അതാ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ നമുക്കൊരു ഒരു ശതമാനം പൈസ നമുക്ക് ഗവൺമെന്റ് കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ അതൊന്ന് പിന്നെ ആട്ടിയൊളിക്കാത്ത രീതിയിൽ നില നല്ല രീതിയിൽ നില നിർത്തുന്ന ഒരു പിന്നെ മേഖല തന്നെയാണ് നമ്മുടെ ടൂറിസം മേഖല